ഹലോ ആ

കട ലൊക്കേഷൻ എഴുമറ്റൂർ

എല്ലാ തരം ഡ്രസ്സുകളും ഉണ്ട് ആ ആ എല്ലാ ആ ആ കൂടുതലായിട്ട് ലേഡീസിൻറെയാണ് കൂടുതലായിട്ടുള്ളത് ആ ഷർട്ടും ജീൻസും ഒക്കെയുണ്ട് ഒരു പത്ത് ശതമാനം കുറച്ച് തരാം ആ പത്ത് ശതമാനം വിലയാണ് ഞാൻ പറഞ്ഞത് ആ പിന്നെ അല്ലെങ്കിൽ നമുക്ക് അതനുസരിച്ച് നോക്കാം ആ നാനൂറ്റമ്പതിന് തരാം നാനൂറ്റമ്പതിന് തരാം കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ നോക്കട്ടെ തരാൻ പറ്റുമോ എന്ന് തരാം ലേഡീസ് ആ സെറ്റ് ആയിട്ട് ഉള്ളതുമുണ്ട് ആ അല്ലാതെയും ഉണ്ട് നേരിട്ട് വന്ന് എടുക്കുന്നതായിരിക്കും സൗകര്യം അതൊക്കെ അടുത്ത ആഴ്ച വരും വരുന്നുണ്ട് ഭയങ്കര സെയിൽ അല്ലേ

നിങ്ങൾക്ക് വേണ്ടത് വന്ന് സെലക്റ്റ് ചെയ്ത് എടുക്കുക എടുത്താൽ മതി അത് ഇവിടുന്ന് തന്നെ സെറ്റ് ആക്കി തരാം അങ്ങനെ പ്രത്യേകിച്ച് കോൺടാക്റ്റ് ഒന്നുമില്ല ആ ഇല്ല ഇത് തന്നെ നമ്പർ മതി ഡാമേജ് ഉണ്ടെങ്കിൽ അത് നോക്കി എടുക്കണം എടുക്കുമ്പം നോക്കി എടുക്കുക ഡാമേജ് ഉള്ളതൊന്നും നിങ്ങൾ എടുക്കണ്ട ഡാമേജ് ഉള്ളത് നിങ്ങൾ എടുക്കണ്ട നോക്കി ഇവിടുന്ന് എടുക്കുമ്പോഴേ അങ്ങ് നോക്കി എടുത്താൽ മതി

ആ ആ ആയിക്കോട്ടെ ശരി എന്നാൽ എൻ്റെ ദൈവമേ തീർന്നോ